സാങ്കേതികവിദ്യയുടെ കാര്യം പറയുകയാണെങ്കില് ഇൻ്റർനെറ്റ് ജിയോ അംബാനി ഇറക്കിയ ജിയോ അത് ടൂ ജി ഫോർ ജി എന്നുള്ള ലെവലിൽനിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു പണ്ടൊക്കെ ഈ സ്ക്രാച്ച് കാർഡായിരുന്നു ഇപ്പോൾ അത് ഓൺലൈൻ പേയ്മെന്റ് എന്ന രീതിയിലാണ് അവരിത് കൊണ്ടുവന്നത് പിന്നെ ഫാസ്റ്റെസ്റ്റ് നെറ്റ്വർക്ക് ആയിരുന്നു പിന്നെ അവരുടെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ വളരെ ഡിഫ്രന്റാണ് കൂടുതലായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ജിയോയെന്ന് പറയണത് പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയില് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിനും കുറേ ഗവൺമെന്റ് സ്കൂളുകള് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ആയാലും ഒരുപാട് ഗവൺമെന്റ് സ്കൂളുകളും കോളേജുകളും വന്നിട്ടുണ്ട് വിനോദം വിനോദത്തിൻ്റെ കാര്യത്തില് നമുക്ക് എടുത്തു പറയാനുള്ളത് മെട്രോ ഇപ്പോൾ വന്നതാണ് വിനോദത്തിന് വേണ്ടിയിട്ട് അതുപോലെത്തന്നെ വന്ദേഭാരത് കേരളത്തിലെ പതിനാല് ജില്ലകളിലേക്കും അതേ ഒന്നിൽ നിന്നുതന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയില്